സമീപ വർഷങ്ങളിൽ ടൂറിസം കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്തെന്നാൽ ഇപ്പോൾ നല്ല മഴയും കാറ്റും അതൊ അതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇപ്പം മഴ തുടങ്ങിയത് മുതൽ നന്നായിട്ട് മഴ പെയ്യും കാറ്റും അതുപോലെ ഒരു പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല മഴ പെയ്യുമ്പോൾ എന്തായാലും ടൂർ ചില ഇപ്പോൾ കോഴിക്കോടായിക്കോട്ടെ ബീച്ച് സൈഡിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുകയും അവരുടെ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നാലും മഴക്കാലങ്ങളിലൊന്നും എല്ലാവരും പുറത്തിറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല പ്രത്യേകിച്ച് പ്രളയമൊക്കെ കഴിഞ്ഞശേഷം മഴ പെയ്യുമ്പോൾ ജനങ്ങൾക്ക് മൊത്തത്തിലൊരു ഭയം തന്നെയാണ് അതുകൊണ്ടും തന്നെ ബീച്ച് സൈഡിലൊന്നും പോകാതെ ഇപ്പോൾ തിര തിരമാലയൊക്കെ പെട്ടെന്നുതന്നെ ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബീച്ച് സൈഡിലൊന്നും ഒരുപാട് ആൾക്കാരൊന്നും പോകാറില്ല അതുപോലെത്തന്നെ ഇപ്പോൾ ട്രക്കിങ് എരിയയിലായിക്കോട്ടെ അതുപോലെ വെള്ളച്ചാട്ടം അതുപോലെ പുഴകൾ തടാകങ്ങൾ അതിൻ്റെ അടുത്തൊന്നും ഉള്ള ടൂറിസ്റ്റ് പ്ലെയിസിലൊന്നും ആരെയും കടത്തി വിടുന്നതുമല്ല ഇപ്പോൾ സൂചിപ്പാറ അതുപോലെ ഇടക്കൽ ഗുഹ ഇപ്പം വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങലുണ്ടല്ലോ ഇപ്പോൾ പുഴയുടെ അല്ലെങ്കിൽ തടാകത്തിൻ്റെ ഏരിയയിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊന്നും ആർക്കും പ്രവേശനമേയില്ലായിരുന്നു അവിടെയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൂറിസം പതിയെ കുറയുകയാണ് അത് ടൂറിസ്റ്റുകൾക്കും ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ് സമൂഹത്തിൽ ഇന്ന് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ വീട്ടിൽത്തന്നെ ഇരിക്കുമ്പം അവരുടെ മാനസികമായിട്ട് അവർ വീക്കായികൊണ്ടിരിക്കും പുറത്ത് ടൂർ ഇപ്പോൾ നമ്മൾ ടൂറിസത്തിന് പോകുന്നതെന്തിനാണ് നമ്മുടെ ശ മനസ്സ് നന്നാക്കാനും അതുപോലെ നമ്മളോരോ നമുക്ക് വീട്ടിൽതന്നെ ഇരുന്ന് മുഷിയുമ്പോളാണ് നമ്മൾ പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകുന്നത് അപ്പോൾ അതുപോലെത്തന്നെ ടൂറിസ്റ്റ് എരിയയിലുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ വരുമാനത്തിലും കുറയും കുറവ് വരുന്നുണ്ട്